ഹലോ ഇത് ബ്യൂട്ടി പാർലർ അല്ലേ വെയ്യോല

ആ യു മതി ആ പിന്നെ ബ്ലീച്ചിങ്ങും ആ പൈസ ഇപ്പോൾ ലാസ്റ്റ് പറഞ്ഞ ഈ ഫ്ലവേഴ്സിൻ്റെ ഇത് ഉള്ളത് അതിന് എന്നാ ആവും ചാർജ് അതിന് എന്നാ ചാർജ് ആവുന്നത് അയ്യൊ അത് വേണ്ട എന്ന് എന്നാൽ പിന്നെ ഈ ഗുവ ഒക്കെ പറഞ്ഞല്ലോ അഞ്ഞൂറ് രൂപയേ ഉള്ളോ ആ എങ്കിൽ അത് അത് മതി ആ മതി ഉം ആല്ല മെഡികെയ്റ് ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ അത് നാളേ ഒരു പന്ത്രണ്ട് മണി ആവുമ്പോഴത്തേക്കും ഞാൻ വന്നാൽ ചെയ്തു തരുമോ ആ വരാം ഓക്കെ ടാങ്ക് യു